ഞങ്ങളുടെ പ്രദേശത്ത് കൂടുതൽ ആയിട്ടും അല്ലെങ്കിൽ പ്രധാനമായിട്ടും ഉള്ള തൊഴിലുകളെന്ന് പറയുന്നത് ഒന്ന് കൃഷിയും പിന്നെ സേവനങ്ങളൊക്കെയാണ് ഇപ്പോൾ കൃഷിക്കൊക്കെ ആണെങ്കിലും പണ്ടത്തെ അപേക്ഷിച്ച് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇന്നത്തെ കാലത്ത് കർഷകരൊക്കെയാണേലും ഒരുപാട് പ്രതിസന്ധികൾ നേരിടുന്നുണ്ട് അവർക്ക് ചെയ്യുന്നതിനുള്ള പണമോ അല്ലെങ്കിൽ അവർ കഷ്ടപ്പെടുന്നതിനുള്ള കൂലിയോ ഒന്നും ലഭിക്കുന്നില്ല അവരുടെ ആ ഒരു കൃഷിയെ തന്നെ അത് നെഗറ്റീവ് ആയിട്ട് ബാധിക്കുന്നുണ്ട് അവരെ ജീവനെ തന്നെ അത് ഭീഷണി ആയിട്ട് മാറുന്നുണ്ട് ഓരോരുത്തരും വളരെ കഷ്ടപ്പെട്ട് പാടത്തൊക്കെ കൃഷി ഇറക്കി അല്ലെങ്കിൽ വിവിധ തരം വിളകളെക്കെ കൃഷി ചെയ്തു നട്ട് വളർത്തിയിട്ടും അവർക്ക് അന്നന്നത്തെ അന്നത്തിന് വേണ്ടീട്ടോ അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടീട്ടോ ഉള്ള പൈസകൾ സമ്പാദിക്കാനായിട്ട് അവരെ കൊണ്ട് സാധിക്കുന്നില്ല അതും അല്ല ഇന്നത്തെ ഒരു കാലാവസ്ഥ തന്നെ കൃഷിയെ വളരെ അധികം മാറ്റിയിരിക്കുന്നു കാരണം ഇന്നത്തെ കാലാവസ്ഥ കാലാവസ്ഥ നമുക്ക് പ്രവചിക്കാൻ പറ്റുന്നതല്ല എപ്പോൾ എന്താണ് അല്ലെങ്കിൽ മഴയാണോ ഇടിയാണോ അല്ലെങ്കിൽ തണുപ്പാണോ ചൂടാണോ ഏത് കാലാവസ്ഥ മുൻപത്തെ കാലത്തെ അപേക്ഷിച്ച് നമുക്ക് ഏത് സീസൺ എപ്പോഴാണെന്നൊക്കെ അറിയാമായിരുന്നു പക്ഷേ ഇന്നത്തെ കാലത്ത് എല്ലാം അൺപ്രെഡിക്റ്റബിൾ ആണ് എപ്പോൾ എന്താണ് എങ്ങനെയാണെന്നറിയില്ല അതുകൊണ്ട് തന്നെ കർഷകർക്ക് കൃഷി ഇറക്കുന്നതും വല്ല വളരെ വെല്ലുവിളി നേരിടുന്ന ഒരു പ്രശ്നമാണ് അതായത് അവരുടെ കൃഷിയെ അത് വളരെ മോശമായിട്ട് തന്നെ ബാധിക്കുന്നുണ്ട് ഇപ്പോൾ പത്രമൊക്കെ തുറന്നാൽ തന്നെ കാണാം ഓരോ കർഷകർ ആത്മഹത്യ ചെയ്തതും അങ്ങനുള്ള പ്രശ്നങ്ങളും ഒരുപാട് അപ്പോൾ ഇന്നത്തെ കാലത്ത് അവർ വല്ലാത്ത പ്രശ്നങ്ങൾ തന്നെയാണ് നേരിടുന്നതും ഒന്ന് അവർക്ക് ചെയ്യുന്നതിനുള്ള കൂലി കിട്ടുന്നില്ല രണ്ട് ഇത് പോലെയുള്ള പ്രശ്നങ്ങൾ മഴയൊക്കെ കയറിയാണെങ്കിലും നെൽകൃഷി ഒക്കെ ഒരുപാട് നശിച്ച് പോവുന്നതും പിന്നെ ഇപ്പോൾ കാട്ടാന ശല്യം അല്ലെങ്കിൽ കാട്ട് പന്നിയൊക്കെ വന്നിട്ടാണേലും കൃഷി നശിപ്പിക്കുക അങ്ങനുള്ളൊരുപാട് പ്രശ്നങ്ങൾ ഇന്നത്തെ കാലത്ത് കർഷകരൊക്കെ നേരിടുന്നുണ്ട് അതുപോലെ തന്നെ സേവനങ്ങൾ എന്താ ഞാൻ പണ്ടൊക്കെ ആൾക്കാർക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ അല്ലേ ഇതു പോലുള്ള സേവനങ്ങളൊക്കെ ചെയ്യാൻ വളരെ ഇഷ്ടമായിരുന്നു ഇന്നത്തെ കാലത്ത് എല്ലാവരും ബിസിയാണ് അവർക്ക് അവരുടെ കാര്യം കഴിഞ്ഞട്ടെ ബാക്കി എന്തും ഉള്ളു ഇത് പോലുള്ള നല്ല പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നവരുടെ എണ്ണം തന്നെ വളരെ കുറവാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇന്നത്തെ കാലത്ത് എല്ലാ മേഖലകളും അതിൻ്റെതായ വെല്ലുവിളി വെല്ലുവിളികൾ നേരിടുന്നുണ്ട്